ഇപ്പോൾ എനിക്കല്ലാതെ എൻ്റെ വീട്ടിലിപ്പോൾ പൂന്തോട്ടം അങ്ങനുള്ളതൊക്കെ പരിപാലിക്കാൻ കൂടുതലും താൽപ്പര്യമുള്ളത് എൻ്റെ അനിയത്തിക്കും അമ്മയ്ക്കോക്കെയാണ് കാരണം ഞാൻ നോക്കുന്നതിലും നല്ല വൃത്തിയായിട്ട് എൻ്റെ അമ്മേം അനിയത്തിയൊക്കെയാണ് പൂന്തോട്ടമൊക്കെ നോക്കുന്നത് അമ്മക്കൊക്കെയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അമ്മ വീട്ടിൽ വളത്തുന്ന ചെടിയല്ലാണ്ട് പുറത്തിപ്പോൾ വേറെ ഏതേലും ഓരോ വീട്ടിലോ ബന്ധുക്കളുടെ വീട്ടിലോ അങ്ങനൊക്കെ പോകുവാണെങ്കിൽത്തന്നെ നമ്മടെ വീട്ടിലില്ലാത്ത തരത്തിലുള്ള ചെടികളൊക്കെയാണെങ്കിൽ അതിൻ്റെ തൈ പറിച്ചോണ്ട് വരുക അതിൻ്റെ കിഴങ്ങ് കൊണ്ടൊരുക അങ്ങനത്തൊക്കെ ചെയ്യുകയും അത് വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കറക്റ്റ് കൃത്യമായിട്ട് അത് കുഴിച്ചിടുകയും അതിനുവേണ്ട വെള്ളം പിന്നെ അതിനുവേണ്ട താങ്ങും തണലും എല്ലാ കാര്യങ്ങളും നൽകാൻ എൻ്റെ അമ്മയ്ക്കും അനിയത്തിക്കൊക്കെ സാധിക്കാറുണ്ട് കാരണം അവരാണത് കറക്റ്റ് എന്താ പറയാൻ നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അത് വളർത്തി കൊണ്ടുവരുന്നതും അതിൽ പൂവുണ്ടായി കഴിഞ്ഞാൽത്തന്നെ നമുക്ക് എന്താപറയാ എനിക്കുണ്ടാവുന്നതിലും വലിയ സന്തോഷമാണ് വീട്ടിൽ അവർക്കും കാരണം അവർ നട്ടു വളർത്തിയ ഒരു ചെടിയിൽ പൂ ആദ്യമായിട്ട് പൂവും ഇതൊക്കെ ഉണ്ടാവുന്നത് അവർക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാഴ്ച തന്നെയാണ് അതുകൊണ്ട് അവർ നല്ല രീതിക്ക് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെതന്നെ ഞാൻ അവരെയും അതുപോലെതന്നെ സപ്പോർട്ട് ചെയ്ത് നല്ല രീതിക്ക് തന്നെ എന്താ പറയാ ഏൻ്റെ വീട്ടിലുള്ള പൂന്തോട്ടം നല്ല വൃത്തിയായിട്ട് തന്നെ പരിപാലിച്ചു കൊണ്ടുപോകുന്നുണ്ട്